പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി രണ്ട് ആറ് അഞ്ച് രണ്ടായിരം പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനെട്ട് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഒന്ന്